ഞാൻ ടെൻത് പഠിക്കുന്ന ടൈമില് എനിക്ക് ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു പാട്ടുപാടാൻ അവസരം കിട്ടി ഒരു കോംപിറ്റീഷൻ നടക്കുകയായിരുന്നു അപ്പൊൾ അതില് പോയതാണ് അപ്പൊൾ അവിടെ വച്ചിട്ട് എൻ്റെക്കാട്ടിലും നന്നായിപ്പാടുന്ന ആൾക്കാര് കുറേയുണ്ടായിരുന്നു അപ്പം എനിക്ക് എൻ്റെ എനർജി മൊത്തം പോയി കാരണം അവരെ ഫസ്റ്റ് അവര് രണ്ട് മൂന്നുപേരുടെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഞാൻ ഒന്നും എന്തായാലും എനിക്ക് കിട്ടില്ല ഷുവറാണ് എന്നൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ ഇരുന്നു ഞാൻ പിന്നെ എൻ്റെ ടൈം വന്നപ്പോ എന്നെ വിളിച്ചു എൻ്റെ പേര് വിളിച്ചു എൻ്റെ പേര് ജാസിം എന്നു വിളിച്ചു അപ്പൊൾ ഞാൻ പെട്ടെന്നാണ് ലോകത്തേ ആയിരുന്നില്ല കാരണം എനിക്ക് എന്താ ഒരു ചെയ്യേണ്ടെന്നും പക്ഷേ എന്താണ് അവിടെ പ പറയണ്ടെന്നും പാടേണ്ടെന്നും എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെയുണ്ടായിരുന്നു അപ്പൊൾ ഫ്രണ്ട് എന്നോട് പറഞ്ഞു നീ പോയി പാട് നിന്നെക്കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞു നിനക്ക് കിട്ടുംന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് എനർജി കേറ്റി വിട്ടു പക്ഷേ ആ ടൈമിൽ പോയി നിന്നപ്പോൾ എനിക്ക് എൻ്റെ കാലൊക്കെ വിറയ്ക്കാരുന്നു എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഒന്നുമുണ്ടായിരുന്നില്ല അപ്പോൾ ഒരഞ്ച് മിനിട്ട് റിലാക്സ് ചെയ്തിട്ട് എന്നോട് പറയാൻ പറഞ്ഞു ഞാനെന്നിട്ട് പറഞ്ഞു അപ്പൊൾ പാടി ഒരു പാട്ട് പാടി ഞാൻ അന്നെനിക്ക് ഇഷ്ടപെട്ട ഒരു പാട്ട് ഞാൻ പാടിയത് എൻ്റെ ഏറ്റവും ഫേവറൈറ്റ് സോങ്ങായിട്ടുള്ള ഒരു നല്ലൊരു തമിഴ് സോങ് അപ്പോൾ എനിക്കെന്നിട്ടതിൽ സെലക്ഷൻ കിട്ടി അങ്ങനെ അങ്ങനൊരാനുഭവം ഉണ്ടായിട്ടുണ്ട്